ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വിസ റൂപേ കാർഡ് ഇവയെല്ലാം നമ്മൾ പണം ഇടപാടുകൾ നടത്തേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാർഡുകളാണ് ഡെബിറ്റ് കാർഡ് വിസ കാർഡ് റൂപേ കാർഡ് ഇതൊക്കെ പണം നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളു ക്രെഡിറ്റ് കാർഡിൽ നമ്മളുടെ അക്കൗണ്ടിൽ പണം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷെയെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുശേഷം അത് നമ്മൾ തിരിച്ചടക്കേണ്ടതുണ്ട് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വിസാ കാർഡ് ഇതെല്ലാം നമ്മുടെ പണമിടപാടുകൾ എളുപ്പത്തിൽ നടത്താൻ വേണ്ടിയാണ് നമ്മളുപയോഗിക്കുന്നത് പൊതുവെ എല്ലാവരും ഡെബിറ്റ് റൂപേ വിസ കാർഡുകളാണ് ഉപയോഗിക്കുക ഇതുമൂലം നമ്മൾക്ക് പണമിടപാടുകൾ എളുപ്പത്തിലും സുതാര്യമായും ചെയ്യാൻ സാധിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ് വളരെ ഉപകാരപ്രദമാണ് കയ്യിൽ പൈസ ഇല്ലാത്ത പക്ഷവും അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത പക്ഷവും നമ്മൾക്ക് പണമിടപാടുകൾ നടത്താൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്രദമാണ്